പാചകം ചെയ്യുമ്പോൾ ഞാൻ എടുക്കുന്ന മുൻകരുതൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യം പിന്നെ എന്തെല്ലാമാണ് പാചകം ചെയ്യേണ്ട കാര്യങ്ങൾ അതെടുത്ത് വയ്ക്കും അതായത് ഇപ്പം ഒരു കറി ആക്കുന്നുണ്ടെങ്കിൽ തലേന്ന് തന്നെ തേങ്ങയൊക്കെ ചിരണ്ടി വയ്ക്കും വെജിറ്റബിൾ എല്ലാം കട്ട് ആക്കി വയ്ക്കും അതിനുള്ള സ്പൈസസ്സ് അതൊക്കെ റെഡി ആയിട്ട് വയ്ക്കും ആദ്യം എന്ന് വെച്ചാൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടാകുമ്പോൾ അതിന് നമ്മൾ കുറച്ച് നേരത്തെ പോകുന്നുമ്പോൾ അതിന്റെ മുൻകരുതലെടുക്കണം അതുകൊണ്ടാണ് തലേന്ന് റെഡി ആക്കി വയ്ക്കുന്നത് പിന്നെ അതെന്ന് വെച്ചാൽ ഓരോ കറിക്കും അതായത് ഒരു വെജിറ്റേറിയൻ വെജിറ്റബിൾസ് കറി ആക്കുന്നുണ്ടെങ്കിൽ അയ് അതിന് മുന്നോടി ആയിട്ട് എല്ലാം കട്ട് മാടി വയ്ക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആക്കി വയ്ക്കും അതിന് ശേഷം ഓരോന്നായിട്ട് വയ്ക്കും പിന്നെ രാവിലത്തെ ആഹാരം ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നോടി ആയിട്ട് അതിനെ ഏത് തരം ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നു അതെല്ലാം പിന്നെ റെഡി ഒക്കെ അരിയാണെങ്കിൽ ഇപ്പം അരച്ചിട്ട് ദോശ ഉഴുന്നിട്ട് അരച്ചിട്ട് അത് റെഡി ആക്കി വയ്ക്കും പിന്നെ അതിന് അതിന് എന്തെല്ലാമാണ് ചട്ട്ണി മാടുന്നുണ്ടെങ്കിൽ തേങ്ങ പിന്നെ പച്ചമുളക് ഉള്ളി അതെല്ലാം റെഡി ആക്കി വയ്ക്കും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെയാണ് ആക്കുന്നത് അത് അതിന് മുന്നേ പാത്രങ്ങൾ അത് ഓരോന്നിനും ഈ ചട്ട്ണി മാടുന്നുണ്ടങ്കിൽ അത് അതിന്റെ തവ അതെല്ലാം റെഡി ആയി അത് പിന്നെ ദോശ പാൻ അതെല്ലാം റെഡി ആക്കി വയ്ക്കും അതെല്ലാം ആയിട്ടേ എല്ലാം അതിന് മുന്നേ അതെല്ലാം റെഡി ആക്കിയിട്ട് ഗ്യാസ് കത്തിക്കാനും എല്ലാം നോക്കാറുള്ളൂ പിന്നെ ചിലതിന് ഇപ്പോൾ ഇപ്പോൾ പ്രോട്ടീൻലെ പരിപ്പ് പയർ അങ്ങനത്തെ എല്ലാം വയ്ക്കുന്നുണ്ടെങ്കിൽ കുക്കർ റെഡി കുക്കറിൽ വേഗം ഈസി ആയിട്ട് ചെയ്യാമല്ലോ അപ്പം കുക്കർ റെഡി റെഡി ആക്കി വയ്ക്കും കുക്കറിൽ ആകുമ്പോൾ നമുക്ക് ഗ്യാസും ലാഭിക്കാം അത് അതുപോലെ നമുക്കത് വേഗം എളുപ്പത്തിൽ വേവിച്ചിട്ട് കിട്ടുകയും ചെയ്യും ആ അതുപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കടല ചെറുപയർ അതെല്ലാം ആക്കുന്നുണ്ടങ്കിലും കുക്കറിൽ വേഗം ഇട്ടിട്ട് റെഡി ആക്കിയിട്ട് വേറെ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതായത് സ്റ്റീൽ പാത്രത്തിലോ പിന്നെ

തഗില അതുപോലത്തെ പാത്രങ്ങളിൽ ഒ ഒഴിച്ചിട്ട് വയ്ക്കും അപ്പം വേറെ ഐറ്റംസ് അങ്ങനെ വറവെങ്കിൽ എല്ലാം കട്ട് മാടിയിട്ട് ചീനച്ചട്ടി അതെല്ലാം റെഡി ആക്കിയിട്ട് വയ്ക്കും അങ്ങനെ അതാക്കുന്നത് പിന്നെ പാചകം ചെയ്യുന്നതിന് മുന്നോടി ആയിട്ട് ആദ്യം നമ്മളെല്ലാം സ്ഥലങ്ങളെല്ലാം ക്ലീൻ ആക്കി വയ്ക്കും അത് തലേ ഇപ്പം രാവിലെ ആയിരിക്കും തുടങ്ങുന്നുണ്ടാവുക തുടങ്ങുന്നതിന് തന്നെ രാത്രി തന്നെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് വയ്ക്കും പാത്രങ്ങളും എല്ലാം എല്ലാം പാത്രം വയ്ക്കുന്ന സ്ഥലങ്ങൾ ഗ്യാസിൻ്റെ സ്റ്റവും എല്ലാം ഇതാക്കി വയ്ക്കും മിക്സി അത് എല്ലാം എല്ലാം ക്ലീൻ ആക്കി വയ്ക്കും അതിന് ശേഷമേ പിന്നെ എല്ലാം തുടങ്ങുള്ളൂ രാവിലെ ആയാലും ഉച്ചയ്ക്കായാലും അങ്ങനെ രാവിലത്തെ അതെല്ലാം ഒരുക്കിയിട്ട് ഉച്ചയ്ക്ക് ആക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന് ശേ അടുപ്പെങ്കിൽ അടുപ്പ് കത്തിക്കുന്നുണ്ടെങ്കിൽ വിറകെല്ലാം തലേന്ന് എടുത്തിട്ട് കൊണ്ടുവയ്ക്കും പിന്നെ അതുപോലെ തന്നെ മൺചട്ടിയിൽ ആണ് ചോറൊക്കെ വയ്ക്കൽ മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ അത് അതിൽ വെള്ളമെല്ലാം എടുത്തിട്ട് ഒരു കുറച്ച് അതിന് മുന്നേ എടുത്തിട്ട് വയ്ക്കും ചോറ് വയ്ക്കുന്നതിന് ഒരുപാട് സമയം അതിൻ്റെ പാത്രം ഇത് വിറക് അതെല്ലാം എടുത്തിട്ട് വയ്ക്കും പിന്നെ വൈകുന്നേരം സ്നാക്സോ എന്തെങ്കിലും ആക്കുന്നുണ്ടെങ്കിൽ ആ സമയം ആകുമ്പോൾ നമ്മൾ കുട്ടികളെല്ലാം വരുമ്പോൾ സ്നാക്സ് അതൊക്കെ എടുക്കുന്നുണ്ട് എന്താണ് ആ സമയത്തെ എന്തെല്ലാമാണ് ഉള്ളത് അത് അപ്പടാപ്പാടെ തൽസമയം തന്നെ എടുത്തിട്ട് വയ്ക്കും പഴംപൊരി അത് ഏത് ഐറ്റംസ് ആക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അതെല്ലാം മുറിച്ച് എല്ലാം റെഡി ആക്കി വയ്ക്കും അത് ആ സമയാകുമ്പോൾ മാത്രമേ എടുക്കുന്നുള്ളൂ രാത്രി അങ്ങനെ ഫ്രഷ് ആയിട്ട് ചൂടോടെ ഉള്ള ഭക്ഷണം തത്സമയെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ആക്കുന്നു എന്നിട്ട് കയ്യിൽ നോൺ സ്റ്റിക് തവയോ എന്തെങ്കിലും ആ സമയം എടുത്തിട്ട് വെച്ചിട്ട് ചപ്പാത്തിയെല്ലാം കുഴച്ച് ഒരു അര മണിക്കൂർ മുമ്പേ കുഴച്ച് വയ്ക്കും അത് എല്ലാം ചൂടോടെ പാചകം ചെയ്യാൻ പാചകം ചെയ്യുന്നത് താല്പര്യമുള്ളതുകൊണ്ട് അങ്ങനെ അതെടുത്ത് വയ്ക്കും മുന്നേ മുമ്പേ ആക്കി വയ്ക്കാറില്ല രാത്രിയിലത്തെ ഭക്ഷണം അങ്ങനെ ഇതുപോലെ തന്നെ എല്ലാം പാചകം ചെയ്യുമ്പോൾ ആദ്യം എല്ലാ പാത്രങ്ങളും വെജിറ്റബിൾസും എല്ലാം റെഡി ആക്കി വയ്ക്കും ഇത് ഇത്തരത്തിൽ തന്നെയാണ് എല്ലാം മുൻകരുതൽ എടുക്കുന്നത് പിന്നെ രാത്രി രാത്രിയിലത്തെ ഭക്ഷണത്തിനോട് അതിന്റേത് ഇത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എടുക്കുമ്പോൾ ആ സമയം എടുക്കുന്നത് ഇപ്പം എടുക്കുന്നത് രാവിലെ ആകുമ്പോൾ രാവിലെ തലേന്ന് ഇതുപോലെ എല്ലാം രാവിലത്തെ ഉള്ള പെട്ടെന്ന് ആകേണ്ട സാധനങ്ങക്കെല്ലാം വെജിറ്റബിൾസ് എല്ലാം കട്ട് കട്ട് ആക്കിയിട്ട് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം ഫ്രിഡ്ജിലാണ് എടുത്ത് വയ്ക്കുക അതാകുമ്പോൾ നമുക്ക് രാവിലെ കുറച്ച് പണി എളുപ്പത്തിലും ആകും സ്കൂളിൽ പോകുന്നെങ്കിലും ജോലിക്ക് പോകുന്നെങ്കിലും ഓഫീസിൽ പോകുന്നുള്ളവർ അവർക്ക് അല്ല ആർക്കാണ്ടെങ്കിലും വേഗം പോകേണ്ടവർക്കെല്ലാം രാത്രി ഇതുപോലെ ഒരു ബോക്സിൽ ആക്കിയിട്ടെല്ലാം നമ്മൾ വെച്ചാൽ നമുക്ക് ജോലിക്ക് പോകുന്നവർക്ക് എല്ലാം നമുക്ക് എളുപ്പത്തിൽ വേഗം ആക്കാം എല്ലാം ശരിയാക്കാം പിന്നെ ഗ്യാസ് ആയാലും കത്തിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെ അത് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല എണ്ണ അതെല്ലാം എടുത്ത് എല്ലാ എല്ലാ ഇൻഗ്രീഡിയൻസും അതെല്ലാം നമ്മള സൈഡിൽ തന്നെ എടുത്ത് വെച്ചിട്ട് എല്ലാം റെഡി ആക്കിയിട്ടേ ചെയ്യാറുള്ളൂ അതുപോലെ കുട്ടികളായാലും എടുക്കുമ്പോൾ അതെല്ലാം ശ്രദ്ധിക്കണമെന്ന് പറയും ചെറിയ കുട്ടികൾക്കെല്ലാം പിന്നെ ഓരോന്ന് ആക്കണ്ടീട്ടെല്ലാം നല്ല വൃത്തിയായി പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം സൂക്ഷിച്ച് എല്ലാം എടുക്കാമല്ലോ എല്ലാം അടുക്കൽ എല്ലാം സ് ഇതാക്കുന്ന പാത്രമെല്ലാം രാത്രിയിൽ കഴുകി വെച്ച് ഒന്നും കൂടി അത് പകൽ എടുത്തിട്ട് ഒന്നും കൂടി കഴുകിയിട്ട് എടുത്ത് വെച്ച് വയ്ക്കും എല്ലാം ക്ലീൻ ആക്കിയിട്ട് റെഡി ആക്കിയിട്ട് രാവിലെ ഇതാക്കും അതായത് എന്ത് തലേന്ന് എന്ത് കഴുകിയേച്ച് ഫ്രഷ് ആക്കിയിട്ട് വെച്ചാലും അത് പിറ്റേന്ന് രാവിലെ ഒന്നും കൂടെ എന്തെങ്കിലും ജീവികൾ എന്തെങ്കിലും പോയിനോ എന്നറിയില്ലല്ലോ അപ്പം അതെല്ലാം ഒന്നും കൂടി ക്ലീൻ ആക്കിയിട്ട് എല്ലാം റെഡി ആയിട്ടേ പിറ്റേന്ന് എല്ലാം തുടങ്ങാറുള്ളൂ അത്തരത്തിൽ എല്ലാം ഗ്യാസ് എല്ലാം തീർന്നിനു അപ്പം അതെല്ലാം നോക്കിയിട്ട് ഗ്യാസ് അതിന് മുന്നേ നിറച്ചെല്ലാം വേറെ ഓർഡർ ചെയ്തിട്ടെല്ലാം റെഡി ആക്കി വയ്ക്കും പിന്നെ ഓരോ വെ നോൺ വെജ് ആണെങ്കിലും മീൻ പിന്നെ എല്ലാം കട്ട് മാ അത് മുറിച്ചിട്ടെല്ലാം ഫ്രഷ് ആയിട്ട് ഫ്രീസറിൽ വയ്ക്കും അതാകുമ്പോൾ നമുക്ക് എളുപ്പപ്പണിയാണ് രാവിലെ കുറച്ച് നേരത്തെ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടൊക്കെ പിന്നെ അത് ഏത് സമയാക്കുതാനുഗോ മീൻ എല്ലാം അര അരച്ചത് ഏതായാലും മീൻ്റെ ആ ഇത് അതിനോട് തന്നെ അരപ്പ് കാര്യങ്ങളെല്ലാം അതും മസാലയെല്ലാം വെച്ച് എടുത്താൽ അതും കുറച്ച് എളുപ്പപ്പണിയാകും ഫ്രിഡ്ജിൽ നല്ല ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാം അതും നല്ല എളുപ്പപണിയോട് കൂടി ആവും എന്നിട്ട് ഇത്തരത്തിൽ ആണ് ഓരോ പാചകം ചെയ്യുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ എല്ലാ പാചകം ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടായിരിക്കും എല്ലാം ആക്കുന്നത്